ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഓഡർ പേജിൽ പോയിട്ട് ട്രാക്കിങ് ചെക്കു ചെയ്യും നടക്കുന്നില്ല എങ്കിൽ ഷിപ്പിങ് ഏജൻറ്റിനെ ബന്ധപ്പെടും എന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ലാ എങ്കിൽ ഏജൻസിയുടെ ഹെഡ് ഓഫീസിൽ ബന്ധപ്പെടുകയോ ഈമെയിൽ ഐ ഡിയിൽ പരാതി രേഖപ്പെടുത്തുകയോ ചെയ്യും എന്നിട്ട് റെസ്പ്പോൺസ് കിട്ടില്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലറിയിക്കുക എന്റെ പ്രോഡക്റ്റിനേപ്പറ്റി ചോദിക്കും എന്തായി പ്രൊഡക്റ്റെവിടെയെത്തി അതെനിക്ക് കൃത്യസമയത്തു കിട്ടുമോ അഥവാ കിട്ടിയില്ലയെങ്കിൽ എനിക്കതിന്റെ റീഫണ്ട് ലഭിക്കുമോ എന്നൊക്കെ അന്വേഷിക്കും എന്നിട്ടും വിചാരിച്ചതു പോലെ റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കൺസ്യൂമർ കോട്ടിൽ പരാതി നൽകുന്നതായിരിക്കും